ഞാൻ റീസെൻറ്റ് ആയിട്ട് വായിച്ച ബുക്കെന്ന് പറയുന്നത് ദ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്കാണ് ഡോക്ടർ ജോസഫ് മർഫിയുടെ അത് ഏറ്റവും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് അപ്പോൾ റീസെൻറ്റ് ആയിട്ട് ഞാൻ അത് വായിച്ചിരുന്നു അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനി സ്വാധീനിച്ചതും റീസെൻറ്റ് ആയിട്ട് കാരണമെന്ന് വെച്ചാൽ ആ ഒരു ബുക്ക് വായിച്ചതിന് ശേഷം പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യണം ഓരോ കാര്യങ്ങൾ എന്നൊരു ഒരറിവുണ്ടായി അപ്പം ആ ഒരു ബുക്കിലൂടെ പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഏതൊരു കാര്യം നമ്മളെക്കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ഞങ് നമ്മളെക്കൊണ്ട് സാധിക്കാൻ പറ്റും അപ്പോൾ അതിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പല കാര്യങ്ങളും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് എനിക്ക് പറ്റും പറ്റും എന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങൾ ഞാൻ സക്സസായിട്ടുണ്ട് അതിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് അതായത് നമ്മുടെ സബ്കോൺഷ്യസിലുള്ള ഒരു വിശ്വാസം ഉണ്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഒണ്ട് അപ്പം ആ ഒരു അവിടേക്ക് നമ്മൾ നമ്മുടെ ഒരു വിശ്വാസം അർപ്പിക്കണം നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലയെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതേ സമയം നമ്മളെ കൊണ്ട് പറ്റും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ അതിൽ വിജയിച്ചിരിക്കും അപ്പം അങ്ങനെ ഒരു ഒരു കാര്യം എനിക്ക് ആ ഒരു ബുക്ക് വായിച്ചതിലൂടെ മനസ്സിലായി അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക്